ഒരു ക്യാബ് വേണമായിരുന്നു അതിനാലാണ് വിളിച്ചത് ആ എനിക്ക് കോഴിക്കോട് നിന്നും കോഴിക്കോട് ബസ്സ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത് എൻ്റെ വീട്ടിൽ നിന്നും കോഴിക്കോട് എം ജി റോഡിലാണ് എൻ്റെ വീട് എം ജി റോഡിൻ്റെ സമീപത്ത് ഞാൻ ലൊക്കേഷൻ വിട്ടു തരാം വാട്സാപ്പിൽ അയച്ചു തരാം ആ അവിടെ നിന്ന് ബസ്സ് സ്റ്റോപ്പിലേക്കാണ് എന്നെ ഇറക്കി വിടേണ്ടത് കൂടൊയൊരു മൂന്നു നാല് ആൾക്കാരും കൂടെയുണ്ടാവും ഒരു നാലാൾക്കാരുണ്ടാവും നിങ്ങൾക്കെത്ര രൂപയാവും ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഞാനത് നിങ്ങളെ കണ്ടതിനു ശേഷം പറയാം ഒരു വൈകുന്നേരം നാലു മണിക്ക് ആണ് വീട്ടിലെത്തെണ്ടത് ഒരു എനിക്ക് ആ ഒരു നാല് മണിക്ക് ആ ഓക്കെ ഓക്കെ